എനിക്ക് ആക്ച്വലി കഴിവുകൾ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു കൊണ്ടു വന്ന് തന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ അത് എത്രയും പെട്ടന്ന് ചെയ്യാനായിട്ടാണ് നോക്കുക അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊണ്ട് ചെയ്ത് കൊണ്ട് തന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനെ എത്രയും പെട്ടന്ന് ഏറ്റവും പെട്ടന്ന് അത് ചെയ്തു തീർക്കാൻ ആയിട്ടാണ് നോക്കുക അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഒരുപാട് രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മള് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ അത് അത്രയും ഉപകാരപ്രദം ഉള്ളതാണ് അതുകൊണ്ടുതന്നെ അങ്ങനെ അതിനെ എനിക്ക് അങ്ങനെയോരു കഴിവുണ്ട് തന്നെ പഠിക്കുന്നത് തന്നെ ടീച്ചറ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നന്നായി ഉൾകൊണ്ട് കൊണ്ട് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ട് ഞാൻ പഠിക്കുമായിരുന്നു അത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്കും കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെത്തന്നെ പഠനം പോലെത്തന്നെ ഞാൻ എന്നും കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് ചിത്രരചന എന്നുള്ളത് അത് ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിരുന്നു ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ആദ്യം ഞാൻ ഒരു ഔട്ട് ലൈൻ കൊടുക്കും പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പെൻസിൽ ഡ്രോയിങ്ങിനാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ നല്ല രീതിയിൽ ചിത്രം വരച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കും ഒരു സംതൃപ്തി തോന്നിയിട്ടുണ്ട് എൻ്റെ ചിത്രരചനയിൽ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും എൻ്റെ നിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് ഏതാണോ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളു എന്നും ഞാൻ വർക്ക് ഔട്ട് ചെയ്ത് ചിത്രം വരച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഇത് ഈ കഴിവുകൾ എല്ലാം വികസിപ്പിച്ച് എടുത്തത്